എല്ലാ ആളുകളും ഒത്ത് ചേരുകയും കൂട്ട് ഒത്ത് ചേരുകയും കാണുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഉത്സവങ്ങൾ പെരുന്നാളുകൾ അങ്ങനെ ഉള്ള ഒരു സാഹചര്യങ്ങൾ അതിൽ എല്ലാ മനുഷ്യരുമായിട്ട് പ്രായഭേദമന്യേ സന്തോഷങ്ങൾ പങ്ക് വെക്കുകയും അതിലുൾക്കൊള്ളുന്ന സദ്യകളോ കാര്യങ്ങളുമൊക്കെ ആയിട്ട് നമ്മളതിനകത്ത് ഒന്നായിട്ട് തന്നെ വലുതെന്നോ ചെറുതെന്നോ ഒന്നും കണക്ക് കൂട്ടാതെ അവരുമായി എല്ലാരുമായിട്ട് സന്തോഷമായിട്ട് നമ്മൾ ആസ്വദിക്കുകയും സമൂഹത്തിൽ നമ്മൾ എല്ലാവരുമായിട്ട് ആ എല്ലാ സമൂഹത്തിലെ ആൾക്കാരും എല്ലാരുമായിട്ടും നമ്മൾ സംസാരിക്കുകയും സന്തോഷം തമാശകൾ പറയുകയും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തമാശകൾ പറയുകയും ചിരിക്കുകയും കാര്യങ്ങളുമെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അതുപോലെത്തന്നെ കല്ല്യാണം കല്ല്യാണം എന്ന് പറയുമ്പോൾ അത് സമൂഹത്തിലുള്ള സമൂഹത്തിലുള്ള ഒരു ഒരു ചടങ്ങാണ് അതിന് നാനാ ജാതി മതസ്ഥരും ജാതി ഭേദമന്വേ എല്ലാവരെയും വിളിക്കുകയും അതിനകത്ത് എല്ലാ മനുഷ്യരും ഉൾക്കൊള്ളുകയും അവരവരുടേതായ രീതിയിൽ അവരെ വിളിച്ച് ഇതാക്കുന്ന സമൂഹത്തിലുള്ള ഒരു അവരുടെ ഇതനുസരിച്ച് തന്നെ സദ്യകളും കാര്യങ്ങളും എല്ലാം നടത്തി ചെയ്യുകയും അതിനകത്ത് പങ്ക് ചേരുകയും സന്തോഷത്തോട് കൂടി എല്ലാവരും ഉൾക്കൊണ്ട് അതിനകത്ത് പോവുകയും എല്ലാം ചെയ്യുന്നൊരു ഒരു ഇതാണ് ഒരു കൂട്ടായ്മയാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അപ്പോൾ നമുക്ക് അതിനകത്ത് പങ്ക് ചേരുക എന്ന് പറയുമ്പം നമ്മളത് സംബന്ധിച്ചോളം വളരെ സന്തോഷം